വയനാട് ജില്ലയിലെ യുവജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നു വച്ചു കഴിഞ്ഞാൽ ധനസഹായം അതായത് ഇപ്പം ഒരാൾക്ക് പഠിക്കണമെങ്കിൽത്തന്നെ ധനസഹായം കൊടുക്കണമെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് സ്ഥലം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം ഇപ്പോൾ സമപ്രായക്കാരുപോലും എന്തു ചെയ്യുക ജോലിക്കൊന്നും പോകുവാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം എല്ലാം എന്താ പറയുക ജോലി അങ്ങനെ കൊടുക്കുന്നില്ല പി എസ് സി മൂലമാണ് കൊടുക്കുന്നത് പി എസ് സിക്കാണെങ്കിൽ ഇപ്പോൾ രണ്ട് മൂന്ന് എക്സാമൊക്കെയായി ഇപ്പോൾ ആൾക്കാർക്കിവിടെ ജോലിയില്ലാത്തൊരവസ്ഥയാണ് ഉള്ളത് എല്ലാവരും അല്ലറച്ചില്ലറ ജോലികളൊക്കെ ആയിട്ടങ്ങ് പോകുന്നു അപ്പം ഇവിടുത്തെ പ്രധാന പ്രശ്നം ഇതുതന്നെയാണ് യുവജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താ പറയുക ഓരോന്നിൻ്റെ പുറകേ നടന്നാൽപ്പോലും അവർക്ക് ജോലി കിട്ടുന്നില്ല ഇപ്പോൾ ചിലർ പാർട്ടീൻ്റെ പുറകേ നടന്നാൽപ്പോലും അവർക്കു ജോലി കിട്ടാത്തൊരവസ്ഥയാണ് ഉള്ളത്